ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തന്നെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അതില് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്രയാണ് മടിക്കേരിയിലേക്ക് പോയ യാത്ര ഞാനും എന്റെ ഒരു പത്ത് പന്ത്രണ്ട് കൂട്ടുകാരും കൂടിയാണ് മടിക്കേരിയിലേക്ക് യാത്ര പോയത് എല്ലാവരും അവരവരുടെ സ്കൂട്ടിയിലും ബൈക്കിലും ആയിട്ടാണ് യാത്ര തിരിച്ചത് നമ്മള് പെരിയയിൽ നിന്നാണ് എല്ലാവരും പുറപ്പെട്ടത് ഏകദേശം ജാല്സൂർ വഴി ആണ് ഞങ്ങള് മടിക്കേരിയിലേക്ക് പോയത് ഏകദേശം രണ്ട് മണിക്കൂറിനടു അധി മുകളില് നമ്മള് ജാൽസൂരി ജാല്സൂരില് എത്താന് എടുത്തു അവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ സ്പോട്ട് എന്ന് പറയുന്നത് അതിനുശേഷം ഞങ്ങൾ നേരെ മടിക്കേരിയിലേക്ക് പോയി മടിക്കേരിയിലേക്ക് പോകുമ്പോളുള്ള ഒരു എന്നും ഓർമിക്കുന്ന ഒരു സംഭവമാണ് എന്റെ രണ്ടു കൂട്ടുകാർ വണ്ടിയിൽ നിന്ന് ചെളിയിലേക്ക് വീണിരുന്നു അതിപ്പോഴും എനിക്ക് മറക്കാൻ കഴിയില്ല കാരണം ഞങ്ങള് എല്ലാവരും മുമ്പിൽ മടിക്കേരിയിലേക്ക് പോ മടിക്കേരിയിലേക്ക് എത്താന് വേണ്ടിയിട്ട് സ്പീഡിൽ പോവുകയായിരുന്നു പക്ഷേ കുറേ കഴിഞ്ഞപ്പോളാണ് ഞങ്ങള് ശ്രദ്ധിച്ചത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടു ഫ്രണ്ട്സിനെ കാണുന്നില്ല അപ്പോഴേക്കും അവർ രണ്ടു പേർ മാത്രം പിറകിലായിരുന്നു അവർ രണ്ടാളും റോഡില് നിന്ന് വീണ് ഒരു ചളിയിലേക്ക് വീണ് ഫുൾ ദേഹത്ത് മൊത്തം ചളിയായി അവർ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ഏതോ വീട്ടിൽ പോയി അവിടെനിന്ന് ചെളിയെല്ലാം കഴുകി അങ്ങനെ അവിടെനിന്ന് ഫ്രഷ് ആയിട്ടാണ് വന്നത് അപ്പോഴേക്കും ഞങ്ങൾ ഒരുപാട് ദൂരം മുമ്പിൽ പോയിട്ടുണ്ടായിരുന്നു അതു ഞങ്ങളപ്പോൾ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അതിന്റെ താഴെ താഴെ ഒരു ചായക്കട ഉണ്ടായിരുന്നു അതിന്റെ അടുത്ത് നിന്ന് ചായ കുടിച്ച് പിന്നെയുള്ള യാത്ര തുടരാന് നിക്കുമ്പോഴാണ് നമ്മൾ അറിഞ്ഞത് നമ്മുടെ കൂട്ടുകാരവിടെ വീണിരുന്നു അവർക്ക് പരിക്ക് പറ്റിയിരുന്നു എന്നെല്ലാം അപ്പോഴാണ് അറിഞ്ഞത് എന്നിട്ട് അവരെയും കൂട്ടി രണ്ടാമത് വീണതൊന്നും കാര്യമാക്കാതെ അവരും നമ്മളൊപ്പം യാത്ര തുടര്ന്നു അവിടെനിന്ന് പിന്നീടങ്ങോട്ട് പോയി പിന്നെയുള്ള ഞങ്ങള സ്പോട്ട് എന്ന് പറയുന്നത് രാജാക്കോട്ട രാജാക്കോട്ട ആയിരുന്നു അവിടെ എത്തി അവിടെയെല്ലാം ഫുൾ ഫുൾ ഗാര്ഡനും അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ഞങ്ങൾക്ക് അധികം വലിയ ഇന്ട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അതൊന്നും കാണാന് അതുകൊണ്ട് അവിടെനിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി പക്ഷേ അപ്പോഴും അവിടെ ഒക്കെ ഭയങ്കര തണുപ്പായിരുന്നു എന്നിട്ട് അവിടെനിന്ന് നേരെ അബ്ബി ഫാള്സിലേക്ക് പോയി അബ്ബി ഫാള്സ് പറയുമ്പോൾ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കുറേ സമയം അവിടെ നിന്നു ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു വന്നു മെയിൻ ആയിട്ട് യാത്ര പോയത് പറഞ്ഞാല് ഫുള് റോഡ് റോഡ് ട്രിപ്പ് വലിയ കാണേണ്ട സ്ഥലങ്ങൾ പോയതൊക്കെ വളരെ കുറവാണ് റോഡ് ട്രിപ്പ് കുറേ ഉണ്ടായിരുന്നു വന്ന വഴിയല്ല ഞങ്ങള് തിരിച്ചു വന്നത് തിരിച്ചു വരുമ്പോള് ഞങ്ങള് വേറെ റൂട്ട് ബന്തടുക്ക സുള്ളിയ റൂട്ടിലൂടെയായിരുന്നു തിരിച്ചു വരുന്നത് തിരിച്ചു വരുമ്പോൾ ഉണ്ടായ വേറെ അനുഭവം എന്നു വെച്ചാൽ ഞങ്ങൾ വേറെ രണ്ടു ഫ്രണ്ട്സും കൂടി ആക്സിഡന്റ് ആയി വീണു അവർ അതായത് ഞങ്ങൾ വരുമ്പോൾ ഒരു ചിക്കന് ബിരിയാണി കഴിച്ചിരുന്നു അപ്പം ആ ചിക്കന് ബിരിയാണി കഴിച്ച ക്ഷീണത്തിൽ എൻ്റെ ഫ്രണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങി അപ്പോൾ ബാക്കിലും ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവർ രണ്ടാളും കൂടി റോഡിൽ വീണു രണ്ടാളുടെയും കാലും ഇതായി പക്ഷേ ഇവർ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായത് കൊണ്ട് ഇവർ വീഴുന്നതും എല്ലാം നമുക്ക് കാണാന് പറ്റി എന്നിട്ട് അടുത്തുണ്ടായ വീട്ടിൽ പോയി എല്ലാം കഴുകി എല്ലാം റെഡി ആയി ഹോസ്പിറ്റലില് എല്ലാം പോയിട്ട് അവരെ ഡോക്ടറെ കാണിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് അതൊരു മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു ആ യാത്രയിൽ അങ്ങനെ രണ്ട് ആക്സിഡന്റുകള് എല്ലാം കഴിഞ്ഞ് ഉണ്ടായ ഒരു ട്രിപ്പ് ആയിരുന്നു മടിക്കേരി ട്രിപ്പ് അതായിരുന്നു ആ ട്രിപ്പിന്റെ മെയിന് പിന്നെ പിന്നെ പോയത് റാണിപുരത്താണ് അത് എന്റെ നാട്ടിലാണ് റാണിപുരം എങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് റാണിപുരത്തേക്ക് അന്ന് പോകുന്നത് അതും പെട്ടെന്ന് പ്ലാന് ചെയ്ത് പോയൊരു ട്രിപ്പ് ആണ് അതായത് തലേദിവസം രാത്രിയാണ് ആ ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഞാനും എന്റെ വേറൊരു ഫ്രണ്ടും കൂടിയാണ് ആ ട്രിപ്പ് പ്ലാൻ ചെയ്തത് അങ്ങനെ വണ്ടി എല്ലാം സെറ്റ് ആക്കി ഞങ്ങൾ ബൈക്കിലും സ്കൂട്ടിയിലും അതേപോലെ കാറേലും എല്ലാം ആയിട്ടാണ് ഞങ്ങൾ ട്രിപ്പ് പോയത് അതായത് റാണിപുരം പോവാൻ വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല കാരണം റാണിപുരം ഞങ്ങൾക്ക് ഭയങ്കര അടുത്താണ് ഒരു നാൽപത് കിലോമീറ്ററേ ഞങ്ങളുടെ വീട്ടിന്നല്ലുള്ളൂ അതുകൊണ്ട് തന്നെ റാണിപുരം പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല അങ്ങനെ രാവിലെ ഏഴു മണിക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ടാണ് നിന്നത് ഞങ്ങൾ എല്ലാവരും എത്തിയിരുന്നു ഒരു ഫ്രണ്ട് ഒഴികെ ബാക്കി എല്ലാവരും പെരിയയിൽ ഏഴു മണിയാവുമ്പം എത്തി പക്ഷെ ഒരുത്തന് മാത്രം എത്തിയില്ല അവന് ബസ് കിട്ടിയില്ല പറഞ്ഞ് ഓന് വെയിറ്റ് ചെയ്ത് നിന്ന് നിന്ന് നിന്ന് ഞങ്ങൾ ലാസ്റ്റ് പുറപ്പെടുമ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പുറപ്പെട്ടത് എന്നാലും ഞങ്ങൾ പോയി എല്ലാവരും സ്പീഡിൽ പോയതുകൊണ്ട് തന്നെ വേഗം എത്തി എത്തിയ പാടെ തന്നെ ടിക്കറ്റ് എടുത്ത് മുകളില് കയറി നല്ലൊരു എക്സ്പീരിയന്സ് ആയിരുന്നു എന്റെ ഫ്രണ്ട് ഫ്രണ്ട്സിനെല്ലാം അട്ടേനെ ഭയങ്കര പേടിയായിരുന്നു എന്നാല് എല്ലാരും പേടിച്ചു പേടിച്ചാണ് കയറിട്ടുണ്ടായിരുന്നത് എന്തായാലും വലിയ ബുദ്ധിമുട്ട് ഒന്നും ഇല്ലാതെ മോളിൽ കയറുമ്പോൾ വലിയ ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടായിട്ടില്ല മോളിലേക്ക് എത്തി കൂടെയുള്ളവർ എല്ലാം നല്ല വൈബ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയില് പോയി എത്തി കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു ഏറ്റവും ടോപ്പിൽ പോയി കുറേ സമയം അവിടെ കാറ്റും കൊണ്ടിരുന്നു പിന്നെ തിരിച്ചു വന്നു വരുമ്പോൾ കുറേ ആളെ അട്ട കടിച്ചു എന്നെയും അട്ട കടിച്ചു അങ്ങനെ ഞങ്ങളെ രണ്ടു മൂന്നു ആളെ അട്ട കടിച്ചു അപ്പോൾ ലൈറ്റര് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സാനിറ്റയിസർ എല്ലാവരും എന്തൊക്കെയോ കൈ കൈയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അട്ട കടിച്ചാലോ പറഞ്ഞിട്ട് സോ എല്ലാവരും അതെല്ലാം എടുത്ത് ആ അതുകൊണ്ട് അട്ടേനെ കളഞ്ഞ് അങ്ങനെ നല്ലൊരു ട്രിപ്പ് ആയിരുന്നു വരുമ്പോൾ ഒരു റസ്റ്റോറന്റ് ഉണ്ടായിരുന്നു വഴിയിൽ തന്നെ അവിടെനിന്ന് നല്ല ഫുഡ് എല്ലാം കഴിച്ച് ആ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ആ ട്രിപ്പ് പിന്നെ കഴിഞ്ഞ വര്ഷം പോയ ഒരു ട്രിപ്പ് പറഞ്ഞാൽ ഊട്ടി വയനാടാണ് അത് ഞാനെന്റെ ഫാമിലിയോടൊപ്പം ആയിരുന്നു പോയത് അതായത് അമ്മയുടെ കൂടെ അമ്മയുടെ ഒക്കെ കൂടെയാണ് ഈ ഊട്ടി വയനാട് ട്രിപ്പ് പോയത് അവരുടെ കുടുംബശ്രീയിൽ നിന്ന് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പം അവരുടെ കൂടെയാണ് ഞാന് ഊട്ടി വയനാടിലേക്ക് പോയത് അതൊരു നാല് ദിവസത്തെ ട്രിപ്പ് ആയിരുന്നു അതായത് കുറച്ച് ദിവസം നീണ്ടു നിന്നിട്ടുള്ള ഒരു ട്രിപ്പ് ആയിരുന്നു ഒരു ദിവസം രാത്രിയാണ് പുറപ്പെട്ടത് പിറ്റേ ദിവസം എത്തി പിറ്റേ ദിവസം ഒരു അമ്പലത്തിലേക്കാണ് അവർ പോയത് രാവിലെ തന്നെ അമ്പലത്തിൽ പോയി നേരെ അവിടെനിന്ന് വിട്ടു പിന്നെ വയനാട് എത്ത് ഫുഡ് കഴിച്ചു വയനാട് എത്തി പിന്നെ ബാണാസുര സാഗ ബാണാസുര അണക്കെട്ട് പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങള് എല്ലാം അവിടെനിന്ന് കണ്ടു പിന്നെ പിന്ന ആ രണ്ടു ദിവസം അങ്ങനെ വയനാടില് രണ്ടു ദിവസം ഉണ്ടായിരുന്നു പിന്നെയാണ് ഊട്ടിക്ക് തിരിച്ചത് ഊട്ടിക്ക് പോകുമ്പോളാണ് നമ്മളെ നീലഗിരി ഫോറസ്റ്റ് എല്ലാം ഊട്ടിയിലാണ് ഉണ്ടായത് പിന്നെ ഫസ്റ്റ് ദിവസം നമ്മൾ സ്റ്റേ ചെയ്തത് ഒരു ഹോം സ്റ്റേയിലായിരുന്നു അതായത് ഒരു വീട്ടിലായിരുന്നു നല്ല അന്തരീക്ഷം ആയിരുന്നു എല്ലാവരും കൂടി രാത്രി ക്യാമ്പ് ഫയര് എല്ലാം ആക്കി അടിപൊളി ഉണ്ടായിരുന്നു അങ്ങനെ അതുകഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഊട്ടി പോയി ഊട്ടിയില് നമ്മൾ സ്റ്റേ ചെയ്തത് ഹോട്ടലിലായിരുന്നു നല്ല എല്ലാം നല്ല അന്തരീക്ഷം ആയിരുന്നു ഊട്ടിയില് പോകുമ്പോളാണ് നമ്മൾ നീലഗിരി ഫോറസ്റ്റും പിന്നെ സൂയിസൈഡ് പോയിന്റും വെള്ളച്ചാട്ടവും എല്ലാം ഉണ്ടായത് അതാണ് എല്ലാ സ്പോട്ടും ഏകദേശം നമുക്ക് കവർ ചെയ്യാന് പറ്റുന്ന എല്ലാ സ്പോട്ടും ഞങ്ങൾ അതിൽ കവർ ചെയ്തിരുന്നു പിന്നെ പിന്നെ ആ ഊട്ടിയില് പോയി ഊട്ടിയില് എല്ലാം കണ്ട് ഒരുപാട് ചോക്ലേറ്റ് ഫാക്ടറി ചായപ്പൊടി ഫാക്ടറി അങ്ങനെ അവിടെനിന്ന് ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് ആ ഫാക്ടറിയിലൊക്കെ പോയതെല്ലാം ഒരു ഡിഫറന്റ് എക്സ്പീരിയന്സ് ആയിരുന്നു ഊട്ടി ഊട്ടി അവിടെ കുറേ ക്യാരറ്റ് കൃഷി ചെയ്യുന്നത് അതൊക്കെ കണ്ടു അതെല്ലാം അത് നല്ല രീതിയില് ഇഷ്ടപ്പെട്ടു തിരിച്ചു വന്നു എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പ് ആയിരുന്നു ഊട്ടി വയനാട് ട്രിപ്പ് അതുപോലെ ഒരു ട്രിപ്പ് ഞാൻ എന്റെ കസിനെയും കൂട്ടി ബാംഗ്ലൂരേക്ക് പോയിരുന്നു അതും നല്ലൊരു ട്രിപ്പ് ആയിരുന്നു അത് ഞാനെന്റെ മറ്റു കൂട്ടുകാര്ക്ക് സര്പ്രൈസ് കൊടുക്കാന് വേണ്ടിയിട്ടായിരുന്നു ബാംഗ്ലൂരേക്ക് പോയത് ഒരു ദിവസം രാത്രി അല്ല വൈകുന്നേരം ആറുമണിക്ക് ട്രെയിൻ കയറി പിറ്റേ ദിവസം രാവിലെ ബാംഗ്ലൂർ എത്തി ഒരു എഴുമണി ഏഴരയൊക്കെ ആവുമ്പോൾ അവിടെനിന്ന് നേരെ എന്റെ കസിന്റെ റൂമിലേക്ക് പോയി അവിടെനിന്ന് ഇങ്ങനെ അങ്ങനെയൊക്കെ പോയതാണ് എന്നിട്ട് എത്തി അന്ന് റസ്റ്റ് എടുത്തു അന്ന് വൈകുന്നേരം തന്നെ എന്റെ ഫ്രണ്ട്സിനെ സര്പ്രൈസ് ചെയ്യാന് വേണ്ടി വേറെ ഒരു സ്ഥലത്തേക്ക് പോയി അങ്ങനെ എന്റെ ഫ്രണ്ട്സിനെ സര്പ്രൈസ് ചെയ്തു അവരൊക്കെ ഭയങ്കര ഞെട്ടലോടെയാണ് എ എന്നെ കണ്ടത് കാരണം അവരൊന്നും ഒരിക്കലും എന്നെ വി കാരണം അവിടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ ആ ട്രിപ്പ് ഇപ്പോളും മറക്കാനാവാത്ത ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ആയാലും ആ ട്രിപ്പ് ഒരു മറക്കാനാവാത്ത അനുഭവമാണ് എല്ലാവരും നല്ലവണ്ണം സര്പ്രൈസ് ആയി പിന്നെ അവിടെ പോയി അവരുടെ കൂടെ പോയി മാളിലൊക്കെ കറങ്ങി അതേപോലെ അവിടെ ഒരുപാട് പാര്ക്ക് ഉണ്ട് ബന്നേർഗട്ട പാര്ക്ക് പിന്നെ ഇത് വേറെ എന്തൊക്കെയോ ഗാര്ഡന് ബോട്ടാണിക്കല് ഗാര്ഡൻ ഉണ്ട് കുറേ പാര്ക്കുകളും മാളുകളും ഉണ്ട് അവിടെയൊക്കെ അവരുടെ കൂടെയൊക്കെ കറങ്ങി പിന്നെ എന്റെ വേറെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞാന് ബാംഗ്ലൂര് വന്നത് അറിഞ്ഞ് അവളും ബാംഗ്ലൂരേക്ക് വന്നു വേറെ ഒരു ഫ്രണ്ടിനെയും കൂടി സര്പ്രൈസ് ആക്കി അങ്ങനെ വെച്ചാൽ ഫുൾ നല്ല ഒരു ട്രിപ്പ് ആയിരുന്നു ബാംഗ്ലൂരിൽ പോയത് അത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ട്രിപ്പ് ആയിരുന്നു അതേപോലെ ഒരുപാട് ട്രിപ്പുകള് പോയിട്ടുണ്ട് പിന്നെ പോയത് കുടും ഫാമിലിയുടെ കൂടെയാണ് അത് ഫുള് അമ്പലങ്ങളിലേക്കായിരുന്നു ഗുരുവായൂർ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമിക്ഷേത്രം അങ്ങനെ ക്ഷേത്രങ്ങളിലേക്ക് പോയ ട്രിപ്പ് ആണ് പിന്നെ ഉള്ളത് അതെല്ലാം ഫാമിലിയുടെ കൂടെ പോയതാണ് മറ്റേ ഞാന് ഏറ്റവും എന്റെ മനസ്സില് ഓര്ത്തിരിക്കുന്നത് എപ്പോഴും എന്റെ കൂട്ടുകാരുടെ കൂടെ പോയ ട്രിപ്പ് ആണ് അതെപ്പോളും എന്റെ മനസ്സിലുണ്ട് ഒരിക്കലും മറക്കാത്ത അനുഭവങ്ങളാണ് നമ്മള് ഓരോ യാത്രയിലും നമുക്ക് കിട്ടുന്നത് അത് എവിടേക്ക് ആയാലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെയാവുമ്പോൾ ഏത് യാത്രയും നമുക്കും അത്രയേറെ പ്രിയപ്പെട്ടതാവും ഇനിയും ഒരുപാട് യാത്രകള് പോവണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാന് ഈ വര്ഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് എനിക്ക് കഴിയുന്ന സ്ഥലങ്ങളില് ഒക്കെയും ഞാന് കഴിവതും യാത്ര ചെയ്യാന് ശ്രമിക്കും